ഏറ്റോം നല്ലൊരു കലയാണ് നൃത്തം അതിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ല പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് രാവിലെ എണീക്കുമ്പോൾതന്നെ നമുക്കൊരു എനർജിയാണ് അതുപോലെത്തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വ്യായാമമുള്ള ഒന്നുകൂടെയാണ് ഡാൻസ് അപ്പം ഡാൻസ് ഏറ്റവും നല്ല ഒരു കലയാണ് അതിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആരോഗ്യപ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾത്തന്നെ നമ്മൾ എന്തെല്ലാം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുണ്ടാകുന്ന നമുക്ക് ഒരുപാട് ഇപ്പോഴത്തെ പച്ചക്കറികൾ ആണെങ്കിലും ആഹാരങ്ങളിലും എല്ലാം എല്ലാത്തിലും നമുക്ക് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏറ്റവും ഒരൂ ശരീരത്തിന് ഏറ്റവും ഒരു ആശ്വാസകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഡാൻസ് ആണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരീരം അനങ്ങി എക്സസൈസിന് എക്സസൈസും ആകും വ്യായാമത്തിന് വ്യായാമം ഏ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ലപോലെ ചെയ്യുന്ന ഒന്നാണ് ഡാൻസ് ആയുസ്സിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ല ഒന്നാണ് മരുന്നിന് പകരം എന്നതുപോലെ ഏറ്റവും നല്ലൊരു ഘടകമാണ് ഡാൻസ്